പ്രധാനമന്ത്രി ആവാസ് യോജന വീടില്ലാത്തവർക്ക് വീട് വച്ചുനൽകുന്ന പദ്ധതി ആണെന്നാണ് ഞാന് മനസ്സിലാക്കുന്നത് ഇതേപോലുള്ള പദ്ധതികളാണ് മറ്റേ തൊഴിലുറപ്പ് പദ്ധതി ഒക്കെ രണ്ടായിരത്തി അഞ്ചില് നിലവിൽ വന്ന തൊഴിലുറപ്പു പദ്ധതി അതിപ്പോള് ഏകദേശം വീട് നോക്കാൻ കഴിയാത്ത കൂടുതലും സ്ത്രീകളായ ആളുകളാണതില് കൂടുതൽ ജോലി ചെയ്യുന്നത് അവർക്ക് അന്നന്നുള്ള ഭക്ഷണങ്ങളും പിന്നെ ചെലവിനൊക്കെ ആയിട്ടുള്ള പൈസ അതു വഴി ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്നുണ്ട് മറ്റ് ജോലികളൊന്നും ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ മറ്റ് ജോലികളൊന്നും കിട്ടാത്ത ആളുകള്ക്കു ജീവിച്ചു പോകാനുള്ളൊരു നല്ല മാർഗ്ഗമായിട്ടാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ മഹാത്മാ ഗാന്ധിയുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് കൂടുതല് സ്ത്രീകളും പ്രായമായ ആളുകളൊക്കെയാണ് അതുവഴി ഒരു നല്ല രീതിയിൽ ജീവിക്കാൻ സഹായകമാവുന്നത് അവർക്ക് ആവശ്യമായ വളരെ കുറഞ്ഞ തുകയാണെങ്കിൽ പോലും അവരെ ചെലവിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പദ്ധതിപ്രകാരം ലഭിക്കുന്നുണ്ട് അപ്പോള് പ്രധാനമന്ത്രി ആവാസ് യോജന ആണെങ്കിൽ പോലും ഈ വീടില്ലാത്തവർക്ക് കുറഞ്ഞ ഫണ്ട് നൽകിയിട്ടത് പിന്നെ കംപ്ലയിൻറ്റായ വീടും കേടുവന്ന വീടുകളൊക്കെയാണെങ്കില് അത് മാറ്റി പുതുതായി നിർമ്മിക്കാനും ഒക്കെ ഇതുവഴി ഫണ്ട് കണ്ടെത്തുന്നത് ജനങ്ങൾക്ക് നല്ല ഉപകാരമുള്ള പദ്ധതികളൊക്കെ ആണ്